നമ്മുടെ പ്രദേശത്ത് ബിസിനസ്സ് എന്നു പറഞ്ഞു തുടങ്ങാൻ പറ്റുന്നത് ചക്കയുടെ ബിസിനസ്സാണ് കേട്ടോ കാരണം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക ചക്കേനെക്കൊണ്ട് നമുക്ക് ബിസിനസ്സ് ഉണ്ടാകും ചക്കേനെക്കൊണ്ട് വളരെ പല ഉൽപന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വിദേശ മാർക്കറ്റിൽ ചക്കയ്ക്ക് മൂല്യം കൂടുതലാണ് കാരണം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കൊണ്ടുതന്നെ പല വിഭവങ്ങൾ അത് നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാൻ ഒക്കെ പറ്റുന്ന ഒരു ഇതാണ് കാരണം ഏത് കാലത്തും സുലഭമായി ഇപ്പോൾ ചക്ക കിട്ടും ഇപ്പോൾ ആ കേരളത്തിൽ നിന്നുതന്നെ ചക്ക വിദേശത്തേയ്ക്ക് അയച്ചുവിടുന്ന അതൊരു നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കയറ്റുമതി ചെയ്യുമല്ലോ അങ്ങനെ ചക്ക ഇപ്പം വിദേശത്തേയ്ക്ക് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി പല വീട്ടമ്മമാരും മുന്നോട്ട് വന്ന് ചക്കകൊണ്ടുള്ള ഉത്പന്നങ്ങൾ ബിസിനസ്സായി ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണത്